കാലാവസ്ഥ വൃതിയാനങ്ങൾ എങ്ങനെ നമ്മുടെ പ്രദേശത്തെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ വെള്ളപ്പൊക്കം തന്നെയാണ് കൂടുതലായിട്ടും

അങ്ങനെ അവിടെ പുഴയിൽ വെള്ള വെള്ളപ്പൊക്കം കാര്യങ്ങൾ അതായത് മല മലയോര മേഖലയാണ് മലയോര മേഖലയിൽ അവിടെ എന്താ മഴ പെയ്താൽ